കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒക്കെ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് അതായത് സ്കൂൾ വിദ്യാഭ്യാസത്തില് പല തരം പിന്നെ പാഠ്യ പദ്ധതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമുക്ക് അതായത് നല്ല നല്ല വിദ്യാഭ്യാസമാണ് ഇപ്പം എല്ലാ സ്കൂളുകളിലും നൽകുന്നത് അപ്പം ഇപ്പം എല്ലാ സ്കൂളുകളും തമ്മിലും മത്സരമാണ് അതായത് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് പ്ലസ് ടു വിന് ഫുൾ എ പ്ലസ് കിട്ടുന്ന കുട്ടികള് അതായത് നല്ലോണം പഠിപ്പിച്ച് ഫുൾ എ പ്ലസ് മേടിക്കുക അവരുടെ സ്കൂളിന് നല്ല പേര് കൊടുക്കുക ആ ഒരു മൈൻഡിലാണ് എല്ലാവരും ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ടീച്ചർമാരൊക്കെ കുട്ടികളെ ഒക്കെ നല്ല രീതിയില് പഠിപ്പിക്കും കുട്ടികളൊക്കെ അതിൽ നിന്ന് സഹകരിക്കുകയും ചെയ്യും പിന്നെ സഹകരിക്കാത്ത കുട്ടികള് ഒരുപാട് ഉണ്ട് പക്ഷെ ആ കുട്ടികൾക്കൊക്കെ ഓരോരുത്തർക്ക് ഓരോ താല്പര്യം ആണല്ലോ ഓരോർത്തർക്കും ഓരോ ഇൻട്രസ്റ്റുകൾ ആയിരിക്കും അപ്പം എല്ലാവർക്കും ഇപ്പം ഒരേ ഇൻട്രസ്റ്റ് ആവണം എന്നില്ലല്ലോ അതായത് പലർക്കും പല ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ആണ് അതായത് പിന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് കുറെ കുട്ടികള് ക്വാളിഫൈഡ് ഒക്കെ ആകുന്നുണ്ട് ഒരുപാട് കുട്ടികള് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതേപോലെ പിന്നെ അതായത് പത്തിനൊക്കെ ഫുൾ എ പ്ലസ് മേടിച്ചിട്ട് ഹയർ സെക്കണ്ടറി നല്ല ലെവലിൽ പാസായിട്ട് ഒരുപാട് പിന്നെ അതായത് വലിയ വലിയ സ് പിന്നെ കോളജുകളിൽ ഒക്കെ അഡ്മിഷൻ കിട്ടി നല്ലോണം പഠിച്ച് ജോലി മേടിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാടുണ്ട്